എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഒരുപാട് കലാകാരന്മാരുണ്ട് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരളം പൊതുവെ നല്ല രീതിയിലുള്ള കലാകാരന്മാരെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കേരളമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകാരുണ്ട് ഇപ്പോൾ നമ്മുടെ പാട്ടുക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറഞ്ഞാൽ ഗാന ഗന്ധർവനായിട്ടുള്ള യേശുദാസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാല് പുള്ളീൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട് നമ്മൾക്ക് ഒരുപാട് പാട്ടുകള് ഭയങ്കര അതായത് ഇപ്പോൾ ഗംഗേ എന്നൊക്കെ പറയുന്നത് അത് പുള്ളി ഒരൊറ്റ ശ്വാസം വിടാണ്ടുള്ള ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നല്ലൊരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എംജി ശ്രീകുമാറുണ്ട് എംജി ശ്രീകുമാറിൻ്റെ പാട്ടുകൾ ഇഷ്ടംപോലെയുണ്ട് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് അതൊരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാലുമായിട്ടുള്ള ഒരു കോമ്പോയാണ് എംജി ശ്രീകുമാറിൻ്റെയും മോഹൻലാലിൻ്റെയും കൂടെ ഒരു കോമ്പോയാണ് നല്ലൊരു പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പുള്ളീൻ്റെ സൗണ്ട് പോലെ തന്നെ അതായത് മോഹൻലാലിൻ്റെ സൗണ്ട് പോലെതന്നെയാണ് നമുക്ക് തോന്നുള്ളു അതായത് എംജിറി എംജി എംജി പാടിക്കഴിഞ്ഞാല് പിന്നെ നമ്മുടെ വാമ്പാടിയുണ്ട് അതായത് വാനമ്പാടി എന്നൊക്കെ പറഞ്ഞാൽ ചിത്ര ചേച്ചി ചിത്രെൻ്റെ പാട്ടുകൾ ഒരുപാടുണ്ട് നല്ല രസമാണ് നമുക്ക് അത് ഒരു വേറിട്ട ഒരു ശബ്ദമാണ് ചിത്ര ചേച്ചീന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽ കിട്ടണെങ്കില് ഇവരുടെ ഈ പാട്ടുകൾ ഒക്കെ കേൾക്കുകയാണെങ്കിൽ അടിപൊളിയാണ്